ഹലോ തീയേറ്റർ ആണോ ആ നമുക്ക് ബ്രോ ഡാഡി സിനിമ ഇപ്പം അവിടെ ഓടുന്നുണ്ടോ ഉണ്ടല്ലേ അപ്പം നമുക്ക് ഒരു അഞ്ച് ടിക്കറ്റ് ഇന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി ആയിരുന്നേ

അതെല്ലേ അയ്യോ ഞങ്ങൾക്ക് അഞ്ച് പേർ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് കുട്ടികൾ ഒക്കെ ആണ് മൂന്ന് കുട്ടികളും പിന്നെ നമ്മൾ രണ്ട് പേരും ആണ് അപ്പം നമുക്ക് അങ്ങന എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടുവോ കുട്ടികളെ നമുക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റില്ലല്ലൊ നമുക്ക് അങ്ങനെ ഒരു ഉപകാരം ഉപകാരം ഉണ്ടെങ്കിൽ അയ്യോ ആ നമുക്ക് വേറെ അതായത് എന്നാൽ പിന്നെ അന്ന് തന്നെ നമുക്ക് ഏത് ഷോ ആണ് അപ്പം ഫുൾ ആയിട്ട് ഉള്ളത് രാവിലത്തെ മോർണിംഗ് ഷോ ആണോ അതോ ഉച്ചത്തെയോ അല്ലെങ്കിൽ നൈറ്റോ അപ്പം എത്ര മണിക്കാണ് തുടങ്ങുക പിറ്റേ ദിവസം രാവിലെ ആവുമ്പം ടൈം ഫിലിമിൻ്റ ടൈം എപ്പോഴാണ് പതിനൊന്നരയ്ക്ക് അല്ലേ അപ്പം നമുക്ക് അയ്യോ നൈറ്റ് വേണമായിരുന്നു അങ്ങനെ ആണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം നൈറ്റ് കിട്ടുവോ നേരത്തെ ബുക്ക് ചെയ്യാൻ ആ എന്നാൽ ഒന്ന് ഇപ്പം തന്നെ ബുക്ക് ചെയ്ത് വയ്ക്കുവോ അത് അങ്ങനെ ഞങ്ങൾക്ക് അഞ്ച് ടിക്കറ്റ് വേണമായിരുന്നു മേലെ തന്നെ കിട്ടുവോ എയിൽ കിട്ടുവോ

ആണല്ലേ ഓ അങ്ങനെ വരും അല്ലേ പത്ത് രൂപ എക്സ്ട്രാ വരും അല്ലേ അതൊന്നും കുഴപ്പം ഇല്ല എന്നാൽ നിങ്ങൾ ഒന്ന് ബുക്ക് ചെയ്ത് വയ്ക്കുവോ എന്നാൽ ആ നമുക്ക് എയിൽ തന്നെ ആപ്പ് വഴിയാണോ അങ്ങനെ ആണെങ്കിൽ ആപ്പ് വഴി ആക്കാനാണോ അതിൽ കയറിയിട്ടാണോ ആ എന്നാൽ ഞാൻ അങ്ങനെ ചെയ്തോളാം ആ ആ ഓക്കെ അപ്പം നാളത്തേക്ക് ഒന്നും ഫുൾ ആയിട്ട് ഇല്ലല്ലൊ അല്ലേ അപ്പം നമുക്ക് നാളെ ഇപ്പം തന്നെ ചെയ്താൽ പോരെ

ആ ഇപ്പം തന്നെ ചെയ്താൽ മതിയല്ലൊ അല്ലേ ആ ഓക്കെ ഓക്കെ താങ്ക് യൂ